ആ ആണത് ഇപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് വേണ്ട എല്ലാ അത്യാവശ്യ സാധനങ്ങളും വേണം ടി വി ഫ്രിഡ്ജ് മിക്സി എല്ലാം വേണം എല്ലാം നോക്കാം ആ ഓക്കേ നമുക്കിപ്പോൾ ഏതൊക്കെ കമ്പനിയാണ് ഉള്ളത് ആ അതെ അതെ അതെ നമുക്ക് അതും ടിവിയും നോക്കാമല്ലേ ഓക്കെ മ് ഒരു അല്ല എനിക്കിപ്പോൾ എൽ ജി മതി ബ്രാൻഡ് അപ്പോൾ അതിലൊരു മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ആ അല്ല മുപ്പത്തൊന്ന് ആ മുപ്പത്തിരണ്ട് ഇഞ്ച് ബഡ്ജറ്റ് ഇപ്പോൾ കുഴപ്പമില്ല നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ തന്നെ വേണം അത് സ്മാർട്ട് ടി വി നോക്കാം ഇതിൻ്റെ ആ

എല്ലാ ഫീച്ചേഴ്സും കിട്ടുമല്ലോ അല്ലേ ഓക്കെ നമുക്കിപ്പോൾ ഇതിൽ വാറന്റിയും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ആ എൽ ജി നോക്കാം ആ

ഓക്കെ ഓ ഓക്കെ ആ അതെയല്ലേ ഓക്കേ ഓ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ആ ഇത് നോക്കാം ഇത് നോക്കാം ഇനി നമുക്ക് മറ്റേ വാഷിംഗ് മെഷീനും എടുക്കാം എടുക്കാം എടുക്കാം അത് നമുക്ക് നമുക്ക് തേർട്ടി ടൂ മതി അതു നമുക്ക് അത് വയ്ക്കാനുള്ള സ്പേസ് കൂടി വേണമല്ലോ ഓക്കെ ഓക്കെ ഓക്കെ നമുക്കിനി വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ഒക്കെ കൂടി നോക്കാമല്ലോ ഓ അതു പായ്ക്ക് ചെയ്യാം ഇതൊക്കെയാണ് ഫ്രിഡ്ജും ഫുള്ളി ഓട്ടോമാറ്റിക്ക് ഡബിൾ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്ക് വേണം ഫുള്ളി വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്ക് വേണം ഫ്രിഡ്ജ് ഡബിൾ ഡോറിന്റേയും വേണം

ഡബിൾ ഡോർ വേണം വേൾപൂളാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് വേൾപൂൾ വേൾപൂൾ ഇല്ല നമുക്കീ ഡബിൾ ഡോർ തന്നെ വേണം നമുക്ക് നാല്പത് നാല്പത്തഞ്ച് അമ്പത്തിൻ്റെ ഉള്ളിൽ ഉള്ളതു നോക്കാം ഓക്കെ ഫ്രിഡ്ജിഡിൻ്റെ കളർ ചേഞ്ച് കിട്ടില്ലേ

ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പോൾ നമുക്ക് ഇതു നോക്കാം ആ അതു ഞാൻ സെലക്ട് ചെയ്തതാണ് വാഷിംഗ് മെഷീൻ എവിടെയാണ് അത് അവിടേലേക്ക് കൊടുക്കാം ആ എഴുതിക്കോളൂ അത് എഴുതിക്കോളൂ

ആ ഓക്കെ ബ്രാൻഡ് തന്നെ നോക്കാം നല്ലത് കുറച്ച് വാറന്റി ഒക്കെ വേണം ഓക്കെ ഓക്കെ ഇതിനു വാറന്റിയും കാര്യങ്ങളും ഒക്കെയോ ഓക്കെ തിരിച്ച് ആ ഓക്കെ ഓക്കെ നോക്കാം ഇനിയിപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ ഇൻസ്റ്റാളേഷനൊക്കെ നിങ്ങൾ ചെയ്ത് തരുമോ നമ്മൾ തന്നെ കൊണ്ട് ആ ഓക്കേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിതിപ്പോൾ ഇൻസ്റ്റാൾ ഇന്ന് തന്നെ വരുമോ ഒന്ന് നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ വരുമോ ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ അപ്പോഴെന്നാൽ അങ്ങനെ ചെയ്യാം വീട്ടിലിപ്പോൾ കൊടുക്കാറുണ്ടോ

ഓക്കെ ശരി പോവുന്നുണ്ട്